ആ മഴ എന്തെങ്കിലും കൊണ്ടോ മഴ എന്തെങ്കിലും കൊണ്ടോ

രാത്രിയിലാണോ ആ വേറെ ആർക്കും പനി എന്തെങ്കിലും ഉണ്ടോ ആ ടെമ്പറേച്ചർ നോക്കിയോ ടെമ്പറേച്ചർ നോക്കിയോ എന്ന് ആ അടുത്തെവിടെങ്കിലും ടെമ്പറേച്ചർ നോക്കുന്ന സ്ഥലമുണ്ടോ ആ ഇല്ലെങ്കിൽ ടെമ്പറേച്ചർ ഒന്ന് നോക്കണം ഒരു മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിൽ നമുക്ക് മെഡിസിൻ കഴിക്കേണ്ടി വരും ആ പിന്നെ വേറെന്തെങ്കിലും തലവേദനയോ ജലദോഷം ഒലിക്കുന്നുണ്ടെന്നാണോ പറഞ്ഞത് മൂക്കിൽ നിന്ന് ആ ഓക്കെ അപ്പോൾ എന്നാൽ ഇപ്പോൾ പനി കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ കാലാവസ്ഥയൊക്കെ മാറി വരുന്നതുകൊണ്ട് പനിയൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല ആവി പിടിക്കുക നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും നന്നായി കഴിക്കുക പിന്നെ പാരസെറ്റമോൾ ഒരു അറുന്നൂറ്റമ്പതിൻ്റെ ഒരു നേരം കഴിക്ക് ആ എന്നിട്ട് കുറവില്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും

ആ ഇപ്പം ഒരു പാരസെറ്റമോൾ കഴിക്കുക എന്നിട്ട് ആവി നന്നായിട്ട് ആവിയൊക്കെ പിടിക്ക് ആ ഭക്ഷണത്തിന് ശേഷം ആ അതെ ഹോസ്പിറ്റൽ എനിക്ക് വേണ്ടി എൻ്റെ എന്നെയാണ് കാണിക്കുന്നതെങ്കിൽ ജനറൽ മെഡിസിനിൽ ബുക്ക് ചെയ്യേണ്ടി വരും ഹെ ആ ഹോസ്പിറ്റലിലെ നമ്പറിലേക്ക് റിസപ്ഷനിലേക്ക് വിളിച്ചാൽ മതി